വിദ്യാഭ്യാസത്തിന് ഏറെ ഊന്നൽ നൽകുകയും വളരെ ഉന്നത ഗുണനിലവാരം ഉള്ള നൽകുകയും ചെയ്യുന്ന ഒരു ശക്തമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിനുണ്ട് എന്നിരുന്നാലും മറ്റ് ഏതു വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പോലെ കേരളവും ചില പ്രശ്നങ്ങൾ അഭി അഭിമുഖീകരിക്കുന്നുണ്ട് കേരളത്തിലെ പല സ്കൂളുകളിലും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിലും ഇന്നും ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അപര്യാപ്തമായ ക്ലാസ് മുറികൾ ലൈബ്രറികളുടെ അഭാവം ലാബുകൾ കളിസ്ഥലങ്ങൾ എന്നിവയുടെ അഭാവം മതിയായ ശുചിത്വ സൗകര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇത് കൂടാതെ യോഗ്യരും പരിശീലനം സിദ്ധിച്ചവരും ക്വാളിറ്റിയുള്ളവരുമായ അധ്യാപകരുടെ കുറവും കേരളം അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുന്നു ഉയർന്ന സാക്ഷരതാ നിരക്ക് കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം നമ്മുടെ കേരള വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാലഹരണപ്പെട്ട അദ്ധ്യാപന രീതികൾ പ്രായോഗികമല്ലാത്ത പഠനരീതികൾ ഇവയെല്ലാം കേരളം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇത് കൂടാതെ പരീക്ഷ സമ്മർദം ഉയർന്ന കൊഴിഞ്ഞു പോക്ക് നിരക്ക് എന്നിവയും എല്ലാം കേരളത്തിൽ കേരളം നേരിടുന്ന വെല്ലു വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നു ഇതിൻ്റെ പ്രധാന കാരണം ദാരിദ്രവും സാമൂഹിക അരക്ഷിതാവസ്ഥയും ആണെന്നത് ആണെന്നതിൽ സംശയം ഇല്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം കുറവാണെങ്കിൽ കൂടി ഇപ്പോഴും പല ഗ്രാമപ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളെ കേരള വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഊഷ്മളമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത്തരം കൊഴിഞ്ഞു പോക്കും കൊഴിഞ്ഞു പോക്ക് ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമില്ലായ്മ മുതലായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുവേണ്ടി പദ്ധതികൾ കേരളാ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൽ പ്രധാനപെട്ട ഒന്നാണ് ഉച്ചഭക്ഷണ സൗജന്യ ഉച്ചഭക്ഷണം പദ്ധതിയായ മിഡ് ഡേ മീൽ സ്കീം മിഡ് ഡേ മീൽ സ്കീം കൂടാതെ ഓ കുട്ടികൾക്ക് ഓണത്തിനും മറ്റ് വിശേഷ ദിവസങ്ങളിലുമെല്ലാം ഉച്ചക്കഞ്ഞി പ്രധാനം ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഒരു പരിധിവരെ ബാല വേല കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് ഇവയെല്ലാം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇത് കൂടാതെ കുട്ടി കുട്ടികളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പു വരുത്തുന്നതിനു വേണ്ടി അദ്ധ്യാപകർക്കായി ഒരുപാട് പ്രവേശന പരീക്ഷകളും അതുപോലെ തന്നെ ഇൻസർവീസ് ട്രെയിനിങ്ങുകുകളും എല്ലാം തന്നെ കേരളാ ഗവൺമെൻറ് നൽകി വരുന്നുണ്ട് ഇത്തരത്തിൽ അദ്ധ്യാപകരുടെ കഴിവ് മെച്ചപ്പെടുത്തി കൊണ്ടും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പാഠപുസ്തകങ്ങൾ സൗജന്യമായി നൽകുക ഭക്ഷണം സൗജന്യമായി നൽകുക എന്നിവ എന്നിവയും അവർക്ക് അവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് കൊണ്ടു വരുത്തുക ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കേരള വിദ്യാഭ്യാസ വകുപ്പ് നൽകി വരുന്നുണ്ട്